അതെയല്ലോ എന്നത്തേനാ സാറെ ഇന്നത്തേനായിരുന്നോ അതോ എന്നത്തേനായിരുന്നു ആ നമ്മളിപ്പോൾ അത്യാവശ്യം തിരക്കുള്ള സമയമായതുകൊണ്ട് അപ്പോയിന്മെന്റെടുക്കണം ഇന്നാണെങ്കില് വയ്ക്കുന്ന നടക്കുമെന്ന് എനിക്കു തോന്നുന്നില്ല നാളെത്തേനാണെങ്കില് അപ്പോയിന്മെൻറ്റെടുക്കുകയാണെങ്കില് നേരത്തെ ചെയ്തുതരാം ആ നാളെ ഉച്ചയാവുമ്പോഴത്തെ നാളെ അപ്പോഴത്തേനും ഉച്ചയാവുമ്പോഴത്തേനും സാറെ അപ്പോള് ആ ഓക്കെ അപ്പോള് നാളെ ഒരു ഉച്ചയാവുമ്പോഴത്തേനും വിളിച്ചിട്ടുണ്ടെങ്കില് നമുക്കൊരു നാലു മണി കഴിയുമ്പോവത്തേനും വാഷിതു തരാമായിരുന്നു ആ നമ്മള് മൈനായിട്ടും മുഴുവൻ ടൈപ്പ് വാഷ് ചെയ്യുന്നെ ഫുൾ ഫുൾ കാർ വാഷിംഗ് വിത്ത് ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്റീരിയർസ് ക്ലീൻ ചെയ്യുന്നെ പിന്നെ പുറമേ മാത്രം ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഇന്റീരിയഴ്സ് മാത്രം ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ മൂന്ന് ടൈപ്പ് മെയിന് വാഷിംഗ് ആണു വരുന്നത് ആ അപ്പോള് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ ഇപ്പോള് നോർമൽ കാർ വാഷിംഗ് ചെയ്താല് ഇന്റീരിയർ ക്ലീൻ ചെയ്യാൻ നമുക്കാവശ്യം ആയതുകൊണ്ട് നമുക്കൊരു അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ച് വരും അല്ലാണ്ട് ഇന്റീരിയർകൂടെ ക്ലീൻ ചെയ്യുന്നതാണെങ്കില് ആയിരത്തി അഞ്ഞൂറ് പിന്നെ അല്ലാണ്ട് ഇന്റീരിയർ മാത്രം ആണെങ്കില് നാനൂറ് അങ്ങനെ അപ്പോള് അങ്ങനെയാണു വരുന്നത് മെയിനായിട്ടും വരുന്നത് അപ്പോള് ആ അതുകൂടി ചെയ്തുതരാം ആ ഫുള് ചെയ്ത് തരുന്നതിനെന്നുവച്ചാല് അത് ഒരു എക്സ്ട്രാ ഒരായിരം രൂപയും കൂടെ ആകുമായിരിക്കും ആ ആ സെറാമിക് ചെയ്യണമെങ്കില് കുറച്ച് ടൈം എടുക്കും നമുക്ക് രണ്ട് ദിവസം എങ്കിലും കിട്ടിയാലേ സെറാമിക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇനി ഒരു ദിവസം കൊണ്ടുത്തരുവാണെങ്കില് സെറാമിക് ചെയ്തു തരുമായിരിക്കും ഇപ്പോള് അത്യാവശ്യം ആയതുകൊണ്ട് സെറാമിക് അല്ല പോളിഷ് മാത്രം ചെയ്തു തരാൻ പറ്റുമായിരിക്കും പോളിഷ് മാത്രം ചെയ്തുതരാന് പറ്റുമായിരിക്കും സെറാമിക് അല്ലാണ്ട് സെറാമിക്കിന് നമുക്ക് ഒരു രണ്ടു ദിവസമെങ്കിലും ടൈം വേണം ആ പോളിഷെയ്തു കിട്ടും ആ നമ്മുടെ കാർത്തുന്നു പറഞ്ഞ സ്ഥാപനത്തില് കയറിയിട്ട് ആപ്പുണ്ട് അതില് കയറിയിട്ട് സാറിൻ്റെ ടൈം ഇട്ട് അപ്പോയിൻമെൻറ്റെടുത്താല് മതി വീട്ടില്നിന്ന് എടുക്കണമെങ്കില് എടുക്കാം നമുക്ക് കസ്റ്റമർ സർവീസുണ്ട് അല്ലാണ്ട് ഏരിയാസുണ്ടപ്പോള് എന്താണു ചെയ്യേണ്ടതെന്ന് സാര് പറഞ്ഞാല് മതി സാര് കൊണ്ടുത്തരുവാണെങ്കില് വരുവണെങ്കില് നമുക്കൊരു ഇരുന്നൂറു രൂപ എക്സ്ട്രാ ആകുമായിരിക്കും ആ അത് നമ്മുടെ ആപ്പിൽത്തന്നെ ഉണ്ട് ലൊക്കേഷൻസും ബാക്കി കാര്യങ്ങളും അതൊക്കെ ആപ്പില്ത്തന്നെയുണ്ട് അപ്പോള് അതു ചെയ്താല് മതി ആ നമുക്ക് ഇപ്പോള്ത്തന്നെ രണ്ട് ഷോറൂമുണ്ട് ഇപ്പോഴത്തെ കാർ വാഷിംഗ് ഷോറൂം പിന്നെ കാർ സർവീസിങ്ങും അങ്ങനെ രണ്ട് വേറെ ഒരു ഷോറൂമുണ്ട് അപ്പോള് ഇപ്പോള് രണ്ടും കൂടെ ചെയ്യണമെങ്കിൽ ഇപ്പോള് രണ്ടു ദിവസം കിട്ടുവാണെങ്കില് നമുക്ക് കാര് സർവീസെയ്തിട്ട് പിന്നെ വാഷ്യ്തങ്ങു ചെയ്യാമായിരുന്നു ഇപ്പോള് ടൈം കഴിഞ്ഞ ടൈം

ആ കഴിഞ്ഞ് ആ ആ അങ്ങനെയെങ്കില് കുഴപ്പമില്ല സാര് ടൈം ഉള്ളപ്പോള് അതില്ത്തന്നെ ഒരു അപ്പോയിന്മെൻറ്റെടുത്താല് മതി അപ്പോള് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് എന്നിട്ട് ടൈപ്പെയ്തിട്ടാല് മതി അപ്പോള് അതനുസരിച്ച് നമുക്ക് എന്താണ് രണ്ടു ദിവസത്തേന് രണ്ട് ഓയിൽ ചെയ്ഞ്ചും കാര്യങ്ങളും ഒക്കെ നൽകി സർവീസും ചെയ്ത് സെറാമികും ചെയ്ത് ഫുൾ കാർ വാഷും ചെയ്ത് തന്നേക്കാമായിരുന്നു പിന്നെ ആ ഒരുപാടുണ്ടോ സാർ ഒരുപാട് പോറിയിട്ടുണ്ടോ ആ എങ്കിൽ ചെറിയ ടച്ചപ്പ് ആ ചെറിയ ടച്ചപ്പൊക്കെ വേണ്ടതു നമുക്ക് ചെയ്യാം അപ്പോള് അത്രയേ ഉള്ളു സാര് നാളെ കൊണ്ടുവന്നാല് മതി ബാക്കി അപ്പോള് പറഞ്ഞാല് മതി ടൈപ്പെയ്തിട്ടാല് മതി ഹലോ ആ ശരി